മെയിൻ ആയിട്ട് നമ്മുടെ കഥകളി കഥകളി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആ കഥകളി കാണാൻ വേണ്ടി ഫോറിൻ കൺട്രീസിന്ന് തന്നെ ആൾക്കാർ വണ്ടി പിടിച്ചിങ്ങ് വരുവായിരുന്നു അവർ വന്നുകഴിഞ്ഞാൽ കറക്കത്തിന് മുന്നെ ആദ്യമേ കഥകളി കണ്ടിട്ടേ ബാക്കി പരിപാടിക്ക് പോകത്തുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനൊക്കെ വരുമ്പോൾ കഥകളിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകേല കഥകളിയാണ് മെയിൻ സാധനം കഥകളി എന്ന് പറഞ്ഞ ഒരു നൃത്താവിഷ്കാരമാണ് കാരണം ആ ടൈപ്പ് രീതിയിലുള്ള കഥകളികളില്ലാതെ ഒരു രീതിയിലുള്ള കഥകളിയും നമുക്ക് കളിക്കാൻ പറ്റുകേലാ കാ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പൂർണ്ണമായി ഒരു കഥകളി കണ്ടിട്ടില്ല പക്ഷേ എല്ലായിടത്തും തന്നെ ഒരു കഥകളിയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കഥകളിയുടെ എണ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞിരിക്കുകയാണ് കഥകളി ഒരു ഇന്ത്യയുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ കേരളത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കഥകളി ആണ് മെയിൻ കാരണം അതിന് കാരണം ആ ഒരു കഥകളിയുടെ നൃത്താവിഷ്ക്കാരം കാണാനാണ് ആൾക്കാർ വരുന്നത് അപ്പം അങ്ങനെ കഥകളി ആണ് കഥകളി പിന്നെ അതുപോലുള്ളതല്ല കുച്ചിപ്പുടി നമ്മളെ ഈ സ്കൂളുകളിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടത്തുമ്പോഴല്ലാം ഇപ്പോൾ ഈ കുച്ചിപ്പുടിയും കഥകളിയും എല്ലാം നമ്മൾ നടത്താറുണ്ട് അങ്ങനെ അതോ അതോടുകൂടി അത് നിന്ന് പോകാനും കാ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കാരണം ഇല്ല ആർക്കും അതിനോടൊരു താല്പര്യവും കാര്യങ്ങളും പഴയതുപോലില്ല അതിൻ്റെയൊക്കെ ഭംഗിയും അതിൻ്റെ നൃത്താവിഷ്കാരത്തിൻ്റെ രീതിയിലുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കാര്യമായി സീരിയസായിട്ടുമെടുക്കേണ്ട കാര്യങ്ങളാണ് കുച്ചുപ്പിടീനൊക്കെ പിന്നെ ചവിട്ട് നാടകം ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ കഥകളിയോടും കുച്ചുപ്പിടിയോടും കൂടിയുള്ള ഒരു സ്പെഷ്യൽ നൃത്താവിഷ്കാരമാണ് കുച്ചിപ്പുടിയും കഥകളിയും എല്ലാം ഒരേ രീതിയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് പക്ഷേ കഥകളി ചവിട്ട് നാടകം ഒക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മളത് ബഹുമാനത്തോടെയും കാര്യങ്ങൾ എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല തമാശയായിട്ടും അതിനെ ഇൻസൾട്ട് ചെയ്യുന്നതതായിട്ടും മാറുന്നു അപ്പോൾ അതുപോലത്തെ നൃത്താവിഷ്കാരങ്ങളെല്ലാം വളരെ രീതിയിൽ കാല കലാരൂപങ്ങളെല്ലാം അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ബ്രേക്ക് ഡാൻസും ബ്രേക്ക് ഡാൻസും സ്റ്റപ്പ് ഡാൻസും ഒക്കെ മതി കാരണം പഴയ കാലത്ത് നൃത്താവിഷ്കാരങ്ങളും അവർ അവരുടെ എല്ലാ ഭാവങ്ങളിട്ടുമുള്ള അവരുടെ നൃത്താവിഷ്കാരങ്ങളൊക്കെ അത് അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് കാരണം അത്രയും എഫർട്ട് ഇട്ട് അത്രയും കാര്യമായി പ്രാക്ടീസ് ചെയ്തു കളിക്കുന്ന അത്രയും കലാകാരന്മാരെ നമ്മൾ അപമാനിക്കുന്നതിനു തുല്യമാണ് നമ്മളുടെ ഈ കലാവിഷ്കാരങ്ങൾ അപ്രത്യക്ഷമാവുന്നത് കഥകളി കുച്ചിപ്പുടി ചവിട്ടുനാടകം നൃത്താവിഷ്കാരങ്ങൾ ഇങ്ങനെയുള്ള പല പല നൃത്താവിഷ്കാരങ്ങൾ പതിയെ പതിയെ കേരളത്തിൽനിന്ന് തന്നെ അപ്രത്യക്ഷമായി പോവുന്നുണ്ട്